എനിക്ക് ഈ പല സാഹിത്യകാരന്മാരെയും ഇഷ്ടം ഉണ്ടെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് അതിനു കാരണം അദ്ദേഹം നർമ്മം കലർന്ന ഭാഷയിൽ അദ്ദേഹം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സംഗതി എഴുതി പിടിപ്പിക്കുകയും വായനക്കാരന് അതു നിരന്തരം വീണ്ടും വീണ്ടും ആവർത്തിച്ചു വായിക്കാനുള്ളൊരു താത്പര്യം ജനിപ്പിക്കുകയും ചെയ്തു കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആഖ്യാന രീതി നമുക്കു കാണാൻ സാധിക്കുന്നതു വിശേഷിച്ച് അദ്ദേഹത്തിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന ഒരു കഥാപാത്രം സ്ഥലത്തെ പ്രധാന ദിവ്യനെന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രൂപ ഭംഗിയും ആകാര വ്യത്യാസവും മുഖത്ത് രോമത്തിൻ്റെ ഭാഗങ്ങളും ചേർച്ചയില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഒരു ഷേപ്പ് എല്ലാം അതിൽ എഴുതി കാണിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആ ചിത്രം കൊണ്ടുവരാനായിട്ടു സാധിക്കുന്ന തരത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് എ ആ നാട്ടിൽ എന്തു കാര്യം വന്നാലും അതു ഞാനാണ് ഞമ്മൾ തന്നെയാണെന്നു പറഞ്ഞ് ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതമാണ് അയാളിൽ കാണുന്ന മാത്രവുമല്ല വൈക്കം മുഹമ്മദ് ബഷീർ എഴുതുമ്പം ആ പ്രദേശത്ത് ഏത് പ്രദേശത്തെയാണോ ആ പ്രദേശത്തെ ഭാഷ ശൈലി അതിൽ ഉപയോഗിച്ചിരിക്കുന്നതു വളരെ നമുക്ക് രസകരമായിട്ടു വായിച്ചു പോകാനും സാധിക്കും അപ്പം എട്ടുകാലി മമ്മൂഞ്ഞ് അവിടുത്തെ ഈ കഥയിലെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം മറ്റാരോ ആണെങ്കിൽ പോലും അതും ഞമ്മള് തന്നെയാണെന്നു പറഞ്ഞ് അതിൽ അവതരിപ്പിക്കുന്നതു വളരെ രസകരമായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരം ഓ ഒരു രചനയിലൂടെ വായനക്കാർക്ക് വളരെ സ്വീകാര്യമായിട്ട് അതു വീണ്ടും വായിക്കണം എന്നുള്ള ഒരു ഇഷ്ടം ജനിപ്പിച്ചുകൊണ്ട് കഥകൾ അവതരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിയും അദ്ദേഹത്തിൻ്റെ നർമ്മവും വളരെ പ്രധാനമാണ് അതുകൊണ്ടുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളത്